നൃത്തം ചെയ്യുന്നവരാണ് നർത്തകർ അല്ലേ നൃത്തം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് നൃത്തത്തെ ഇഷ്ടപ്പെട്ട് ആ കല തിരഞ്ഞെടുക്കുന്ന ധാരാളം പേരുണ്ട് അതല്ലാതെ തന്നെ കുഞ്ഞുനാളിൽ തന്നെ നൃത്തത്തിനോടുള്ള അഭിരുചി ഉണ്ട് എന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും നൃത്തം പഠിക്കാൻ കുട്ടികളെ കൊണ്ടാക്കുന്നും ഉണ്ട് ഒരു വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ കാണികളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാവണം നൃത്തം അല്ലേ രസിപ്പിക്കുകയും വേണം ചിന്തിപ്പിക്കുകയും വേണം ഇപ്പം പലപ്പോഴും നർത്തകർക്ക് അവരുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള പ്രതിഫലം പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ് ഇന്ന് കണ്ട് വരുന്നൊരു പ്രവണത ഇന്നെന്നല്ല പണ്ട് കാലം മുതലേ ഉള്ള ഒരു കാണാറ് സാധാരണ കാണാറുള്ളൊരു കാര്യമാണ് കലയെ സ്നേഹിക്കുന്നവരായ നർത്തകരാണെങ്കിൽ കിട്ടുന്നത് മതി എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും എൻ്റെ വീടിനടുത്ത് ഇതുപോലെ രജനി എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അവർ നൃത്ത അധ്യാപികയുമാണ് പല വേദികളിലൊക്കെ പോയി നൃത്തം ചെയ്യാറും ഉണ്ട് രാത്രിയൊക്കെ ഈ വേദിയിലൊക്കെ പോയി നൃത്തം ചെയ്യുമ്പോൾ നാട്ടിലെ പലർക്കും അവരോട് അത്ര വാ ഒരു സ്ത്രീ ആയി ആയതുകൊണ്ടായിരിക്കാം പലർക്കും അവർ ആ ഒരു പ്രവൃത്തിയോട് അനുകൂലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഉയർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പല തടസ്സങ്ങളെയും അവർ തട്ടി മാറ്റി മുന്നേറി ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ ഒരു അധ്യാപികയായിട്ട് ഒരു നർത്തകിയായിട്ട് മാറിക്കഴിഞ്ഞു അത് തന്നെ ഒരു വളരെ നല്ലൊരു പ്രചോദനമാണ് നമുക്ക് എല്ലാവർക്കും ഒരു നൃത്തം ഇഷ്ട്ടപെടുന്ന ഒരു ആൾ അല്ലെങ്കിൽ തന്നെയും ഒരു മലയാളി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു യുവതി എന്ന രീതിയിൽ ഒക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് രജനി ചേച്ചിയുടെ ഭാഗത്ത് നിന്നും എനിക്ക് ഉണ്ടായത്